വിദ്യാസമ്പന്നന്നായ ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് നല്ല തത്ത്വങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നല്ല തത്ത്വങ്ങൾ പാലിക്കുന്ന ഈ പാലിക്കുന്ന നല്ല പെരുമാറ്റമുള്ള ആളാവണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കാരണം വിദ്യാഭ്യാസമുള്ള പല വ്യക്തികളെയും നാം നിരന്തരം കാണുന്നത് അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതി മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതി വളരെ വ്യത്യസ്തമായ രീതിയാണ് അതുകൊണ്ട് തന്നെ

അതുപോലെ തന്നെ എല്ലാ വിദ്യാസമ്പന്നരായ ആളുകളെ ഇതേപോലെ ആകണം എന്നില്ല ഞാൻ പറയുന്നത് അധിക പേരും ഈ രീതിയിൽ പോകുന്നവരാണ് എന്ന രീതിയിൽ വെച്ചാണ് പറഞ്ഞത് എന്നിരുന്നാലും നല്ല രീതിയിൽ പോകുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ അവരെയൊന്നും നമ്മുടെ സമൂഹം കാണുന്നില്ല കാരണം എന്താണ് അവരെ എല്ലാം കവച്ച് വയ്ക്കുന്ന രീതിയിൽ